ഞങ്ങളുടെ സമുദായത്തിൽ പാരമ്പര്യമായും പല കൃഷിരീതികളും കൈമാറി വന്നിട്ടുണ്ട് അതിൽ നെൽകൃഷി ആണ് ഏറ്റവും പ്രാചീനമായി തന്നെ ഇവിടെയുള്ളത് ഇത് നാട്ടിൻ പ്രദേശമായതുകൊണ്ട് തന്നെ എല്ലാ വർഷവും കൃഷി ഇറക്കുകയും അത് കൊയ്യുകയും നടത്തുകയും അതുപോലെ ഓരോ വർഷവും വിത്ത് പാകൽ തൊട്ട് വിളവെടുപ്പ് വരെ ഉള്ള ഒരു ഉത്സവം പോലെയാണ് കൊയ്ത്ത് കൊണ്ടാടുന്നത് ഏപ്രിൽ ഒന്നിന് ഏപ്രിലിൽ വിഷു കഴിയുന്നതോടുകൂടി ഉത്സവം ആരംഭിക്കുന്ന പോലെയാണ് പല വേറെയും പല കൃഷി രീതികൾ ഇവിടെ കണ്ടുവരുന്നുണ്ട് മീൻ വളർത്ത് കോഴി വളർത്ത് ആട് വളർത്ത് പശു പളർത്ത് അതുപോലെ പല പക്ഷികളെയും മൃഗങ്ങളെയും വളർത്തുന്നതും മുട്ട കൊണ്ടു കൊടുക്കുന്നതും പാൽ കൊണ്ട് കൊടുക്കുന്നതും അതുപോലെയുള്ള പലതരം കർഷകർ ഈ നാട്ടിലുണ്ട് പിന്നെ ഇതൊരു പുഴയോര പ്രദേശം ആയതുകൊണ്ട് തന്നെ മീനുകളെ വളർത്തുന്നതിൽ ഇവർക്ക് പ്രത്യേക കഴിവാണ് പിന്നെ അതുപോലെ തന്നെ പശുവിനെ മേയ്ക്കാൻ വിടുന്നതും അതിന് തീറ്റ കൊടുക്കുന്നതും അതിനെ കുളിപ്പിക്കുന്നതും എല്ലാം വളരെ നല്ല രീതിയിൽ നോക്കി വരുന്നു അതിന് എല്ലാ വീടുകളിലും ഒരുവിധം എല്ലാ വീടുകളിലും തൊഴുത്തുകളുണ്ട് പശുവിന് പുല്ല് അരിഞ്ഞു കൊടുക്കുന്നത് കോഴികൾക് തീറ്റ ഇട്ടു കൊടുക്കുന്നതും എല്ലാം വീടുകളിൽ കുഞ്ഞു കുട്ടികളാണ് ഈ കൃഷി രീതികളെല്ലാം ആ വീട്ടിൽ ഓരോരുത്തരിലും വളരെയധികം സ്വാധീനം സ്വാധീനം ചെലുത്തുന്നതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്